അതെ

അപ്പോൾ അടുത്ത് വീടുകളൊക്കെയുണ്ടോ ആ ഈ അമ്മ തന്നെയാണോ താമസിക്കുന്നത് അപ്പം നിങ്ങൾ ആ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ആരെങ്കിലും വന്നറിഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ട് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് എഴുതി തരുവാണെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് എൻക്വയറിക്കായിട്ടങ്ങോട്ട് വരാമായിരുന്നു ആ എന്നാൽ ഞാന് ഇവിടുന്ന് ആളെ വിടാം അതുപോലെ തന്നെ അവിടെ ആരും അങ്ങനെ ആ ഉള്ളിലേക്ക് കയറോ അവിടെ തെളിവുകൾ നശിപ്പിക്കോ ചെയ്യാൻ പാടില്ലാന്നറിയിച്ചേരെ കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ആ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഒരാളെ അയക്കാം അപ്പോൾ അമ്മച്ചി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തോടുക്കുക